നമ്മുടെ മൃഗങ്ങളെ മെയ്യേണ്ടത് പച്ചപ്പുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് മെയ്യേണ്ടത് അതുപോലെത്തന്നെ മോശമായിട്ടുള്ള കാലാവസ്ഥയും അവരെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മോശമായിട്ടുള്ള കാലാവസ്ഥ അവരുടെ ആരോഗ്യത്തെയും കൂടുതൽ ബാധിക്കുന്നതാണ് പിന്നീട് ഒരുപാട് അസുഖങ്ങൾക്കും ഒരു കാരണമാകും ഈ കാലാവസ്ഥ ഇപ്പോൾ ചൂട് ക ഒരുപാട് ചൂടു സമയങ്ങളിൽ ചില മൃഗങ്ങൾ അതുപോലെത്തന്നെ പട്ടി അങ്ങനത്തെ ഇനങ്ങളുള്ള മൃഗങ്ങൾക്ക് കോഴിമുട്ട അങ്ങനത്തെ ഒന്നും അവർക്ക് കഴിക്കാനൊന്നും പാടില്ല കാരണം ചൂട് കൂടുതലും അവരുടെ ആരോഗ്യത്തെ ബാധിച്ച് പല രീതിയിലുള്ള അസുഖങ്ങളുണ്ടാകും പിന്നെ അവരുടെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുകയും പല രീതിയിലുള്ള അസുഖങ്ങളുണ്ടായി ചൂട് കൂടുന്ന അനുസരിച്ച് അവരെ കൂടുതലും ബാധിക്കുന്നത് അവരുടെ കണ്ണുകളിലാണ് ബാധിക്കുന്നത് അതുപോലെത്തന്നെ അതു തണുപ്പു കാലത്തും അവർ നല്ല രീതിയിലുള്ള തണുപ്പ് കാലത്ത് അവർക്ക് അത് അത്യാവശ്യമായിട്ടുള്ള ചൂട് അനുഭവപ്പെടേണ്ടതാണ് അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ മൃ മൃഗങ്ങൾ വളർത്തുന്ന മനുഷ്യരെ അതു ശ്രദ്ധിക്കേണ്ടതും അവരെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ടതുമാണ് പ്ലാസ്റ്റിക്ക് പോലെ ഉള്ള വസ്തുക്കൾ അവരടുത്തു നിന്നും പരമാവധി മാറ്റി നിർത്തേണ്ടതാണ് കാരണം അവർക്കറിയത്തില്ല അത് അവർക്ക് കഴിക്കാനുള്ളതാണോ അല്ലയോ എന്നത് അതവർക്കറിയത്തില്ലാത്ത കാര്യമാണ് പ്ലാസ്റ്റിക്കിലൂടെ അവർക്കൊരുപാട് അസുഖങ്ങളും ഉണ്ടാകും അതിലൂടെ ഒരുപാട് ദോഷങ്ങളുമാണ് മൃഗങ്ങൾക്ക് സംഭവിക്കുന്നത് പ്ലാസ്റ്റിക്ക് പോലെ ഉള്ള വസ്തുക്കൾ അവിടെ നിന്നും പരമാവധി മാറ്റി നിർത്തേണ്ടതു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെത്തന്നെ പരിസ്ഥിതിയുമായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള വിഷമുള്ള പുല്ലുകളിൽ നിന്നും അവരെ സംരക്ഷിക്കേണ്ടതാണ് അവർക്ക് വെഷ വിഷമുള്ള ഏതൊരു കാര്യങ്ങളും ഇവരെ കൂടുതലും ബാധിക്കുന്നതാണ് പ വിഷമുള്ള പ്ലാസ്റ്റിക്കിൽ അതുപോലെ തന്നെ ഏതൊരു നല്ലൊരു കാലാവസ്ഥയിലും അവരെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ടത് ഓരോ മനുഷ്യരുടെയും നല്ല ഒരു തീരുമാനവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മൃഗങ്ങളുടെ സന്തോഷം നോക്കി മനുഷ്യർ നിൽക്കേണ്ടതാണ് അവർക്കുണ്ടാകുന്ന വേദനകൾ അതു നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവരെ ഉള്ളിലും സന്തോഷങ്ങളും എല്ലാം തന്നെ വിഷമങ്ങളും ആരോഗ്യപരമായിട്ടുള്ള പല കാര്യങ്ങളും മൃഗങ്ങൾക്കുണ്ട് അതു മനുഷ്യർ നോക്കിക്കണ്ട് അവരെ പല രീതിയിൽ കാലാവസ്ഥയായിട്ടുള്ളതിനും അതുപോലെത്തന്നെ പ്ലാസ്റ്റിക്ക് പോലെ ഉള്ള വസ്തുക്കളിൽ നിന്നും പല രീതിയിലുള്ള പരിസ്ഥിതി മാറ്റങ്ങളിൽ നിന്നും ഇവരെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഉള്ള കാര്യമാണ് മൃഗങ്ങൾക്കു പച്ചപ്പുള്ള സ്ഥലങ്ങൾ അവർക്ക് കൂടുതലും സന്തോഷമാകുന്നു